ബ്രാഹ്മിൻസ് ആണ് രാവിലെ എഴുന്നേറ്റ് സൂര്യന് സൂര്യനമസ്കാരം ചെയ്ത് സൂര്യന് വെള്ളം തളപ്പിക്കുന്നതും നെറ്റിയിൽ കുങ്കുമം ഇടുന്ന കുങ്കുമംന്ന് പറഞ്ഞാല് ഹിന്ദുക്കള് എല്ലാവരും ഇടുന്നതാണ് എല്ലാ ഇപ്പൊൾ അതെല്ലാം കുറവാണ് പക്ഷെ ബ്രാഹ്മിൻസ് ആണ് കൂടുതല് ഇതൊക്കെ ചെയ്യുന്നത് അവര് രാവിലെ എണീച്ച് സ്ത്രീകള് മുമ്പില് വീടിന്റെ മുന്നിൽ എല്ലാം കഴുകി വൃത്തിയാക്കി പടിയെല്ലാം ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി അവിടെ കോലമൊക്കെ വരച്ച് നല്ല ഇതിൽ ഇരിക്കും പിന്നെ രാവിലെ അവര് പിന്നെ ക്ഷേത്രത്തിൽ പോയി പിന്നെ ദൈവത്തിനെ കണ്ടു പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ വരുന്ന ആൾക്കാരാണ് ബ്രാഹ്മിൻസുകൾ നമ്പൂതിരിമാരും അവർക്കും പൂണൂലുണ്ട് ബ്രാഹ്മിൻസിനും പൂണൂൽ ഉണ്ട് ഇപ്പൊൾ എല്ലാം കുറെ ആചാരങ്ങൾ എല്ലാം അവരത് മാറി അവര് നമ്മളതിൽ പെട്ടത് പോലെ ആയി ഇപ്പൊൾ പണ്ടത്തെ പ്രായമുള്ളവർ മാത്രാണ് ഇപ്പോഴും നല്ല രീതിയിൽ നിക്കുന്നത് പിന്നെ പ്രായം കുറഞ്ഞവരെല്ലാം കണക്ക് തന്നെ എല്ലാരും നമ്മളെപോലെയൊക്കെ തന്നെ അവർക്ക് അങ്ങനെ ആചാരങ്ങളും ഇതൊന്നുമില്ല പിന്നെ പൂണൂല് ഇട്ടാലും അവര് എല്ലാ മത്സ്യമാംസങ്ങളും കഴിക്കും മറ്റേ അവരാണെങ്കിൽ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാല് പിന്നെ മത്സ്യ മാംസമൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഇപ്പോ എല്ലാം എല്ലാത്തരത്തിലും എല്ലാരും കണക്കാണ് അങ്ങനെയാണ് ഈ ബ്രാഹ്മിൻസാണ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ